ശരീര ഭാരം കുറയ്ക്കാനായിട്ടു നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണം കണ്ട്രോൾ ചെയ്യണം അപ്പോൾ അതായത് കൂടുതലായിട്ടും മാംസമായിട്ടുള്ള അതായത് മാംസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നമ്മൾ കുറയ്ക്കുക പിന്നെ നോൺ വെജ് ഐറ്റംസ് കണ്ട്രോൾ ചെയ്യുക കഴിക്കാണ്ട് ഇരിക്കണ്ട എന്നല്ല കണ്ട്രോൾ ചെയ്യണം അതായത് ഒരുപാട് കഴിക്കാൻ പാടില്ല ഒരു അളവിൽ വരെ കഴിക്കുക പിന്നെ നമ്മൾ നടത്തം കുറച്ച് എക്സ്ർസൈസും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുക പിന്നെ നാട്ടിൽ പ്രചാരത്തിലുള്ള എന്താ പറയുക ഭക്ഷണ രീതി ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അരി ഭക്ഷണം മാക്സിമം കുറയ്ക്കാൻ നോക്കുക അരി ഭക്ഷണം കുറച്ചിട്ട് ഗോതമ്പ് അങ്ങനത്തെ ഭക്ഷണം കൂടുതൽ ആക്കുക പിന്നെ എന്താ പറയുക വേറെ ഒരു രീതിയിലുള്ള ആ ജങ്ക് ഫുഡ്സ് നാട്ടിൽ ഇപ്പോൾ നാട്ടിലെ ഭക്ഷണ രീതി ശീലിച്ചു വന്നയാൾക്ക് പെട്ടെന്നു പോയിട്ട് പുറത്തു നിന്ന് ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് അയാളുടെ തടി അല്ലെങ്കിൽ കൂ ശരീരഭാരം കൂട്ടും പിന്നെ നമ്മൾ ഡെയിലി ഈ നാരങ്ങ നീര് നാരങ്ങ നീര് അതായത് നാരങ്ങ വെള്ളമല്ല നാരങ്ങ നീര് കുടിക്കുക നാരങ്ങ മൊത്തം അടിച്ചു പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ളം ചേർക്കാതെ കട്ടിയുള്ള നീര് കുടിക്കുക പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് അതിൽ യൂസ് ചെയ്യണമെന്നു പറയുമ്പോൾ ഈ എന്താ പറയുക കുറച്ച് വർകൗട്ടും കാര്യങ്ങളും മെയിൻ ആയിട്ടു ചെയ്യണം പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഒന്നായിട്ട് പിന്നെ വരുന്നത് ഇഞ്ചി നീരും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് കുറച്ച് നമ്മുടെ വയറിൻ്റെ ഗ്യാസ് അങ്ങനത്തെ പ്രശ്നങ്ങളോടൊപ്പം ഈ ശരീരഭാരവും നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരും